ഗ്രോസറി ഷോപ്പ് ആണോ ആ അതേ ഞാനേ ചില അരികളുടെ കാര്യങ്ങളൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത് ആ അത് നമുക്കേ അത് പിന്നെ രോഗികളൊക്കെ ഉള്ള വീടാണേ അപ്പം കൂടുതൽ ഷുഗർ പേഷ്യൻറ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത് നമ്മുടെ അരികൾ ഉണ്ടല്ലോ അപ്പം അത് ചുമന്ന അരി ഏതൊക്കെ തരത്തിലുള്ളതുണ്ട് ആ അതിന് വേ

ആ അപ്പം അതിന് വില എങ്ങനെയുണ്ട് ആ ആ ആ ആ പിന്നേ കുഞ്ഞുങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഒക്കെ വരുന്നുണ്ട് അപ്പം ഇനി അത് സദ്യയ്ക്ക് വിളമ്പത്തക്ക വെള്ള അരി ഉണ്ടോ സദ്യയ്ക്ക് വെള്ള അരി അല്ലേ നല്ലത് ആ അതാവുമ്പോൾ ഇവിടെ ഒരു അരി ഉണ്ട് അല്ലേ ആ അത് ആ ആ കുട്ടനാടൻ അരികളൊക്കെ കാണുമായിരിക്കും അല്ലേ ആ അപ്പം ഞാനേ ആ ആ അപ്പം നമുക്കേ ഈ കുറച്ച് പേർക്ക് ഞങ്ങൾ ഓർക്കുന്നത് പിന്നെ ബിരിയാണി കൊടുക്കാം വിചാരിച്ചാണ് ഇരിക്കുന്നത് ബിരിയാണിയോ അല്ലെങ്കിൽ നമുക്ക് അതുപോലെ ഫ്രൈഡ് റൈസോ എന്തെങ്കിലും കൊടുക്കാനായിട്ടാണ് അപ്പം അതിന് പറ്റിയ അരി എന്തുണ്ട് നമുക്ക് ജീരകശാല അരി ബസ്മതി ആ അപ്പം ഈ നീളം ആ അത് ആ അതാണ് ആ അതാണ് ഈ നീളം നീളം കൂടിയ അരിയാണ് ആ ആ ആ ആ ആ അല്ലെങ്കിൽ നമ്മൾ ചെയ്യും നിങ്ങൾ ഈ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങോട്ട് സംസാരിക്കാതെ ഞങ്ങൾ ഒക്കെ ആവശ്യക്കാരല്ലേ ഞങ്ങളും കൂടെ ഒന്ന് സംസാരിച്ചോട്ടെ പിന്നെ ഞങ്ങൾക്കേ നിങ്ങൾ ഈ കോട്ടയംകാർ ഒക്കെയാണ് കല്യാണക്കാർ വരുന്നത് അപ്പോൾ അവർക്ക് കൂടുതലും ഫ്രൈഡ് റൈസ് ഒക്കെയാണ് കൂടുതലും നല്ല ഫ്രൈഡ് റൈസിൻ്റെ അരിയാണ് ഞങ്ങൾക്ക് ഇഷ്ടം നീളൻ വെള്ളയരി മതി അപ്പോൾ അതിൻ്റെ വില ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു നമുക്ക് ഡിന്നർ ഡിന്നർ ഉണ്ടെങ്കിലുമേ ക്നാനായക്കാരാണ് അവർക്ക് കുറച്ച് ഫ്രൈഡ് റൈസിൻ്റെ ആളുകളും കൂടിയാണ് ആ ആ ആ ആ ആ ഓക്കെ താങ്ക് യു അപ്പം ശരി ഓക്കെ താങ്ക് യു അങ്കിൾ നമുക്കേ ഓൺലൈൻ ആയിട്ട് നിങ്ങൾ നമുക്ക് തരുമല്ലോ ഓൺലൈൻ ആയിട്ട് തരണം കേട്ടോ ആ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു